ഞാൻ എന്റെ ഹസ്ബന്റിന്റെ ഫെയ്സ് ഹസ്ബന്റിന്റെ ഫെയ്സ്ബുക്കിൽ കയറാറുണ്ട് ഹസ്ബന്റ് സ്ഥിരം ഫെയ്സ് ബുക്കിലാണ് മോളും ഉണ്ട് ചില സമയത്ത് ഇവരുടെയൊക്കെ ഫെയ്സ് ബുക്കിൽ ഞാൻ അത് പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് ഇഷ്ടംപോലെ കോമഡി കമന്റ്സും ഒക്കെ ഇടാറുണ്ട് മോള് അതിന്റെ കൂടെ ഇടുന്ന എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചുള്ള അതിനെ കാരണം അതിനെക്കുറിച്ചു കുറെ കമന്റ് അതിന്റെ കുറെ ഫോട്ടോസ് ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ഒക്കെ ഇടുന്നുണ്ട് അതെല്ലാം കണ്ട് കുറേ സമയം ഞാൻ ഈ ഫെയ്സ് ബുക്ക് കുറേ സമയം ചിലവഴിക്കുന്നുണ്ട് എന്നുവെച്ചാൽ കുറേ സമയം എന്നുപറഞ്ഞാൽ ഉച്ചകഴിഞ്ഞാൽ ഒരു ഒന്നര തൊട്ട് ഒരു രണ്ടര മൂന്നു വരെ ഇതു തന്നെ പരിപാടിയാണ് ഫെയ്സ് ബുക്കിനകത്താണ് അതിനകത്ത് കുറേ കുറേ കാര്യങ്ങൾ നല്ലതു കാണാനുണ്ട് നല്ല കാര്യങ്ങൾ അറിയാനുണ്ട് കൂടുതൽ വാർത്തകളുണ്ട് പിന്നെ ഓരോ ഓരോന്ന് ഓരോത്തിടത്തും നടക്കുന്ന ഓരോരോ സംഭവ വികാസങ്ങളുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു അപകടമുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ബോധവാന്മാരാകാൻ അതുവഴി പെട്ടെന്നു കാണാൻ സാധിക്കും പിന്നെ ചിലർ ചില രീതിയിലുള്ള കുറേ വേണ്ടാത്ത കുറേ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അത് നമുക്കൊരിക്കലും യോജിക്കാൻ മേലാത്ത പോസ്റ്റുകൾ ചെയ്യുന്ന ആ ഫെയ്സ്ബുക്കിൽ ഒന്നും ഇങ്ങനെ ഇത്ര വൃത്തികെട്ട ഉപ ഒന്നും ചിലവഴിക്കരുത് അത് വൃത്തികേടാണ് ആ ഫോട്ടോസ് ഒക്കെ ഇടുന്നത് മറ്റുള്ളവർക്കും അത് ആണുങ്ങൾക്കും ഒക്കെ അരോജകരവും ആണുങ്ങൾക്ക് അല്ല കാണുന്ന പെണ്ണുങ്ങൾക്കും നല്ല നല്ലതായിട്ട് ജീവിക്കുന്ന നല്ല രീതിയിൽ പോകുന്ന മനുഷ്യർക്കും അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ നമ്മൾ അത് ഫെയ്സ് ബുക്കിൽ ഇടുന്നതായിട്ട് ഒക്കെ ഒഴിവാക്കണം അവരുടെ ജീവിതം അവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകണം പൊതുവെ മറ്റുള്ളവരിൽ എല്ലായിതും അടിച്ചേൽപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്യുന്ന ഒരു ജീവിതം അല്ല ഒരു കുടുംബ ജീവിതം എന്നു പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന കാര്യങ്ങളെ അല്ലേ ഒരു അപകടസമയ ഒരു അപകടം നടക്കുന്നു ആ അപകടത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ഒരു ഒരു സഹായം ഇന്ന ഇന്ന രോഗമാണ് എനിക്ക് എന്റെ കുഞ്ഞിന്റെ രോഗം ഇന്നതാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഏറെക്കുറെ ചീത്തകാര്യങ്ങൾ കുറച്ചു കുടിച്ചു ബഹളം വെയ്ക്കുന്ന കാര്യങ്ങൾ പെണ്ണിനെ പിടിച്ചു കൊണ്ടു പോകുന്ന കാര്യം പെണ്ണിനെ ഇടിക്കുന്നത് തല്ലുന്നത് ഇങ്ങനെയുള്ള ഈ ചീത്ത കൂട്ടുകെട്ട് ചീത്തകാര്യങ്ങളൊക്കെ കാണിക്കുന്നത് തെറ്റായ കാര്യമാണ് ഫെയ്സ് ബുക്കിൽ പിന്നെ വീക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും വാർത്തകൾ അതിൽ വരുന്നുണ്ട് അതു മുഴുവൻ ചീ കാണിക്കരുത് അങ്ങനെയൊന്നും കാണിക്കരുത് യദാർത്ഥത്തിൽ അത് നമ്മൾ കാണുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുറേ ആ അച്ഛന്മാരെ കുറിച്ചും പിതാക്കന്മാരെക്കുറിച്ചും കുറേ പേർ കമന്റ് പാസ്സ് ആക്കുന്നുണ്ട് അവർ അങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണ് അവർ അനുസരിക്കാത്തവരാണ് പിന്നെന്തിന് അവർ മറ്റുള്ളവരെ അനുസ് അനുസരിപ്പിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും ഈ ഫെയ്സ് ബുക്കിൽ അല്ല ഇടേണ്ടത് നമ്മൾ സ്വയം നമ്മുടെ വിശ്വാസത്തിലൂടെ വേണം മുന്നോട്ടു പോകാനായിട്ട് അല്ലാതെ ഫെയ്സ് ബുക്കിൽ ഇത് പറഞ്ഞോ മറ്റുള്ളവരെ കേൾപ്പിച്ചോ ഞാൻ ഞാനെന്ന ആളെന്നുള്ള ഒക്കെ ഭാവം കാണിക്കുമോയെന്നും ചെയ്യാതെ എളിമയോടുകൂടി അതിൽ നല്ല കാര്യങ്ങൾ മാത്രം ഇട്ടു വേണം നമ്മൾ മുന്നോട്ടു പോകാനായിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു ഫോട്ടോ ഇടണം അല്ലേ നമ്മുടെ ബർത്ത് ഡേ അല്ലേ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അതിന് അവർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുക അല്ലാതെ അതിൽ വൃത്തികേടായിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ലേ കുടുംബസമേതം ഉള്ള ഒരു ഫോട്ടോയോ ഇന്നതോ ഇട്ടോ ഒന്ന് ഒരു ലൈക്ക് അടിക്കുകയോ ഒരു കമന്റ് പാസ്സാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതു കൊണ്ട് ഒന്നും കുഴപ്പമില്ല പിന്നെ അല്ലാതെ ഇന്റർനെറ്റ് പോലെയുള്ള ഈ ഇങ്ങനെയുള്ള ഈ ഫെയ്സ് ബുക്കിലെ വേറെ കാര്യങ്ങൾ ഒന്നും കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ എന്തുകൊണ്ടും നല്ലതാണ് കുറേ കാര്യങ്ങൾ അറിയാൻ പിന്നെ കുറേ സീരിയൽ കുറേ സീരിയലിന്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഓരോരോ സീരിയൽ പത്തരമാറ്റ് മൗനരാഗം കുറേ ഉണ്ട് അങ്ങനെ കുറേ സിനിമകൾ കുടുംബവിളക്ക് ഇങ്ങനെയുള്ള സിനിമയുടെ സീരിയലിലെ കുറെ കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട് അതും ഒന്നു പെട്ടെന്ന് എല്ലാവർക്കും ആ സീരിയലിന്റെ ഒരു പ്രധാന ഭാഗം ഒന്നു മനസ്സിലാകണമെങ്കിൽ അത് ഉപകരിക്കും സീരിയൽ കാണുന്നവർക്ക് മിക്കവരും കാണുന്നുണ്ട് ഏതാനും ചിലരെ ഉള്ളൂ കാണാത്തത് കാണുന്നു എന്നാൽ അവർക്ക് അത് ഉപകരിക്കുന്നുണ്ട് അത് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ വേറെ കുറേ വേണ്ടാത്ത കുറേ പോസ്റ്റുകൾ ഇടുന്നത് ഒന്നുകൊണ്ടും യോജിച്ചതല്ല അത് ഒത്തിരി അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് ഒത്തിരി തട്ടിപ്പും അതിൽ നടക്കുന്നുണ്ട് അത് തെറ്റായ ഒരു കാര്യമാണ് അത് ഇനിയെങ്കിലും ഒഴിവാക്കുക ഈ മീഡിയ വഴി അങ്ങനെ ചെയ്യരുത് സോഷ്യൽ മീഡിയ വഴി കാണിക്കുന്ന നമുക്ക് വേണ്ട കാര്യങ്ങളും നമുക്ക് അറിയേണ്ട കാര്യങ്ങളും മാത്രം പറയുക പിന്നെ നല്ല നല്ല കുറേ ന്യൂസുകൾ പെട്ടെന്നു നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ